ഇന്ത്യയിലെ ഗതാഗത സംവിധാനം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളെ റോഡ് വളരെ ദയനീയാവസ്ഥയിലാണ് കുണ്ടും കുഴിയും എല്ലാം ആയിട്ടാണ് റോഡ് ഇപ്പം പോവുന്നത് ഇപ്പോൾ നമ്മള റൂട്ടിൽകൂടി തന്നെ ബസ് ഒന്നും പോവുന്നതേ ഇല്ല ബസ് യാത്ര വല്ലപ്പോഴേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു ടൌണിൽ തന്നെ പോവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോക്കാരൊന്നും ഈ വഴിയിൽ വരുന്നില്ല നമ്മളിപ്പോൾ ടൌണിൽ നിന്ന് വിളിക്കണം ഒരു ഓട്ടോയിന് വേണ്ടി അപ്പോൾ അവർ പറയും ഇങ്ങള റോഡ് ശരിയല്ല ഇങ്ങൾ റോഡ് ആദ്യം നന്നാക്ക് എന്നിട്ട് ഞമ്മള വിളിക്ക് എന്നെല്ലാം നമ്മളോട് പറയുന്നു നമ്മളിപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ടാവുമോ ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കോണ്ടാക്ട്മാർ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല റോഡ് ഒക്കെ ആക്കിത്തരാൻ പറ്റും അവർ നല്ല കോണ്ടാക്ടുമാർക്ക് കൊടുക്കുക നല്ല മെറ്റലും നല്ല ഇതൊക്കെ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് റോഡ് പോവില്ല ഇതിപ്പോൾ നമ്മള നാട്ടിൽത്തന്നെ എന്ന് വെച്ച്കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും റോഡ് കുണ്ടും കുഴിയും ആയിട്ടാണ് വരുന്നത് അപ്പോൾ അവർ വന്ന് നോക്കുക അല്ലെങ്കിൽ കോണ്ടാക്റ്റുമാർ ചെയ്യുന്നുണ്ടോ എന്താണ് സാധനങ്ങളൊക്കെ ഇറക്കുന്നത് നല്ല മെറ്റൽ ആണോ അതെല്ലാം അവരും വന്ന് നോക്കി ചെയ്യിക്കണം അപ്പോൾ ഇങ്ങനെയെല്ലാം ആണിപ്പോൾ ചെയ് നടക്കുന്നത് നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ കാരണം നമുക്ക് ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ടൌണിൽ പോവുക വരുക നമ്മൾ ഇവിടെനിന്ന് നടന്ന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം ടൌണിലേക്കുണ്ട് വാഹനങ്ങളാണെങ്കിൽ ഒരു മഴ പെയ്തിട്ടിണ്ടെങ്കിൽ പുഴ പോലെയാണ് റോഡ് ഉള്ളത് നമ്മൾ പുഴയാണ് പുഴ പോലെയുള്ള ഇങ്ങൾ ഇങ്ങോട്ട് പോവില്ല ഈടെ ഇറക്കി വിടും എന്നെല്ലാം പറഞ്ഞ് ഡ്രൈവർമാരെല്ലാം ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല റോഡ് ആക്കിത്തരാൻ നമ്മള സർക്കാരിനോട് പറയുന്നത് അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്ത് തരാൻ പറ്റുവാണെങ്കിൽ അവരൊന്ന് ചെയ്ത് തരട്ടെ